ഡൽഹി ഫോട്ടോഗ്രാഫി യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ജെ ജെ സാർ ഇൻസ്റ്റിട്യൂഷൻ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഒരുപാട് ഡിഗ്രി ഫോട്ടോഗ്രാഫി ഡിഗ്രി പഠിപ്പിക്കുന്ന ഒരുപാട് കോളേജുകളും കാര്യങ്ങളുമൊക്കെയുണ്ട് അപ്പോള് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയുണ്ട് അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഫോട്ടോഗ്രാഫി ഡിഗ്രി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളിലൊന്നാണ് നമ്മുടെ കേരളത്തിലുള്ളതില് അല്ല ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഡൽഹി ഓൾമോസ്റ്റ് നല്ലയൊരു യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളുമൊക്കെ അവര് അവരുടെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻവസ്റ്റ് ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര നിലയിൽ നോക്കുകയാണെങ്കിൽ നമ്മള് യൂറോപ്പിയൻ കൺട്രീസിലായിക്കോട്ടെ അതുപോലെ തന്നെ ഇന്ത്യയില് തന്നെ നമ്മള് പുറത്ത് ഒരു യു എ ഇയിലും അതുപോലെ തന്നെ എല്ലാത്തിലും ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ ഇതൊരു മാസ്റ്റർ ഡിഗ്രി പോലെയാണ് കൊണ്ടുവരുന്നത് ബി എഫ് എ എന്നാണ് ഈ ഡിഗ്രിക്ക് ഇപ്പോള് നമ്മള് പറയുക ബാച്ചിലർ ഓഫ് ഫോട്ടോഗ്രാഫി അങ്ങനെയാണ് നമുക്ക് ബി എഫ് എ ആണ് വരിക നമുക്കിതിപ്പോള് പഠിച്ച് കഴിഞ്ഞും പഠിക്കുമ്പോള് തന്നെ നമ്മളൊരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വിസിറ്റ് ചെയ്ത് നമ്മളോരോ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് വേണം നമുക്കിതിനകത്ത് ഇതാക്കാൻ അതുപോലെ തന്നെ ഡിഗ്രിയെക്കാളും കുറച്ചുംകൂടെ നമ്മള് മാസ്റ്റര് എടുക്കുകയാണെങ്കില് അതായിരിക്കും നല്ലത് മാസ്റ്റര് ഓഫ് എന്താണ് പറയുക ഫോട്ടോഗ്രാഫി ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്